ഇന്ത്യയിലെ ഏറ്റവും കായിക വിനോദം എന്തൊക്കെയാണെന്നു ചോദിച്ചാൽ ക്രിക്കറ്റ് ഫുട് ബോൾ അതേ ക്രിക്കറ്റ് ഫുട് ബോൾ ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് കായികമായ വിനോദത്തിൽ പെട്ടതെ അത് അതിനകത്തെ ഏറ്റവും പ്രശസ്തമായ കായികതാരമെന്നു പറഞ്ഞാൽ പി ടി ഉഷ ഓട്ടം ഓട്ടമെന്നു പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ ഒന്നാണ് വെള്ളിയും സ്വർണ്ണവും നേടിയ അനേക കായിക താരങ്ങളുള്ള ഒന്നാണ് പി ടി ഉഷ നല്ലയൊരു ഓട്ടക്കാരിയാണ് സച്ചിൻ ടെൻഡു ടെൻഡുരാൻ നല്ലയൊരു ക്രിക്കറ്റ് താരമാണ് പിന്നെ രാജീവ് ക്രിക്കറ്റ് താരങ്ങളാണ് അങ്ങനെയുള്ള പ്രശസ്തരായ അനേകം പേരുള്ള ഒരു കേരള ജനതയുടെ മണ്ണാണ് ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യ ഇന്ത്യ കേരളം സോറി കേരളമല്ല ഇന്ത്യ ഇന്ത്യയിലെ അനേകം മക്കൾ കായിക താരങ്ങളായ അനേകം മക്കളുള്ള ഒരു വിനോദ സ്ഥലമാണ് ഇന്ത്യ ഇന്ത്യയിലേറ്റവും കൂടുതൽ ഇന്ത്യയിലെ മക്കളേറ്റവും കൂടുതൽ ആസ്വദിക്കു ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതെ വിനോദമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിൽ ക്രിക്കറ്റും ഫുട് ബോളും ഇന്ത്യയ്ക്ക് വെളിയിലും കുഞ്ഞുങ്ങൾ ചെന്നാലിവിടുത്തെ ഇന്ത്യയിലെ മക്കൾ വെളിയിൽ ചെന്നാലും ക്രിക്കറ്റും ഫുട് ബോളും ൻ്റെയും തരംഗങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ഒരു സുന്ദരമായ നിമിഷങ്ങളാണ് ഈ മക്കളൊക്കെ കടന്നു പോകുന്നതെ നമ്മുടെ വരും തലമുറയ്ക്കും അതൊരു നല്ലയൊരു സുഗമമായ ഒന്നായി തീരു തീരുമെന്നെ നമ്മൾ പ്രതീക്ഷിക്കാണ് അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന അനേകം മക്കളിന്നു നമ്മുടെ കുഞ്ഞങ്ങളിലുണ്ട് അതുകൊണ്ട് ഏറ്റവും ജനപ്രിയമായ വിനോദത്തിലേക്ക് വിനോദത്തിലേർപ്പെട്ടതാണ് ക്രിക്കറ്റും ഫുട് ബോളും ഒക്കെ അതിനായി പരിശ്രമിക്കുന്ന അനേകം മക്കൾക്കൊരു പ്രോത്സാഹനമായിട്ടിതു മാറട്ടേയെന്നു ആശംസിക്കുക കൂടി ചെയ്യുന്നു